പഴയ തലമുറ കുറച്ചും കൂടി വിശ്വാസം ഉള്ള ആൾക്കാർ തന്നെ ആണ് അതിപ്പോൾ നമ്മൾക്ക് എന്താ പറയുക അവർ ഡെയിലി അവരുടെ ഒരു ജീവിത രീതി കണ്ടാൽത്തന്നെ നമുക്ക് മനസിലാകും രാവിലെ എണീച്ച് മിക്കവാറും ആൾക്കാർ ഇപ്പോൾ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മിക്കവാറും എല്ലാവരും പഴയ അവർ രാവിലെ നേരത്തെ എണീച്ച് കുളിച്ച് അമ്പലത്തിൽ പോയി അങ്ങനൊരു സ്റ്റാർട്ട് ചെയ്താലാണ് അവർക്കൊരു സംതൃപ്തി ഉണ്ടാവുക അപ്പോൾ അതിപ്പോൾ നമ്മളുടെ കാഴ്ച നേരെ മറിച്ച് ഇപ്പോഴത്തെ തലമുറ ഈ എന്തെങ്കിലും അവരുടെ പിറന്നാളോ അല്ല ഇപ്പോൾ അവിടെ ഉത്സവങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളോ ഇപ്പോൾ ഈ ആ അങ്ങനത്തെ സമയങ്ങളിലാണ് മെയിനായിട്ട് അമ്പലത്തിൽ പോവുക മറ്റുള്ളവർ എന്നു പറഞ്ഞാൽ പഴയ തലമുറ പക്ഷേ ഡെയിലി മിക്കവാറും ആൾക്കാരും എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി അവർ പിന്നെ അമ്പലത്തിൽ പോയി പോവും പിന്നെ നമ്മുടെ ചന്ദനക്കുറിയും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഡെയിലി അമ്പലത്തിൽ പോവാൻ പറ്റി രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഏതെങ്കിലും ഒരു നേരം പോവും പിന്നെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം മിക്കവാറും പൂജ ഇപ്പോൾ പൂജാമുറി മിക്കവാറും എല്ലാ വീടുകളിലും പൂജാമുറിയും കാര്യങ്ങളുമുണ്ടാവും അപ്പോൾ അവർ ആ വീടുകളിൽ അവരുടെ ഏതെങ്കിലുമൊരു ദൈവത്തിന് മുമ്പിൽ കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ധ്യാനിക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങൾ അത്യാവശ്യം കുറച്ച് ശ്ലോകങ്ങളും കാര്യങ്ങളുമൊക്കെ ചൊല്ലി അതൊരു എന്താ പറയുക ഈ രാമനാമം ചൊല്ലുകയെന്നോ അല്ലെങ്കിൽ വൈകുനേരം നാമം ചൊല്ലൽ അങ്ങനെയുള്ളൊരു പരുപാടി എന്തായാലും മിക്ക വീടുകളിലും നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇപ്പോഴത്തെ തലമുറയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതായത് അവർ ചെയ്യും ചെയ്യില്ലയെന്നല്ല പക്ഷേ അങ്ങനെ വിശ്വാസങ്ങൾ കാണിക്കാനോ പ്രകടിപ്പിക്കാനോ ഉള്ളൊരു ഇതൊന്നും ഇപ്പോഴത്തെ തലമുറ ചെയ്യുന്നില്ല